കേരളത്തിലെ കരകൗശല മേഖല സംസ്ഥാനത്തിനും പൈതൃകത്തിനും എങ്ങനെ സംഭാവന നൽകുന്നു എന്നുള്ളതാണ് പാരമ്പര്യങ്ങളും ചിഹ്നങ്ങളും മൂല്യങ്ങളും കഥകളി ഉത്സവങ്ങളും സംസ്കാരം മുതലായവയാണ് എനിക്ക് കിട്ടിയ വിഷയങ്ങൾ കാരണം പാരമ്പര്യങ്ങള് പാരമ്പര്യങ്ങളനുസരിച്ചു ഹിന്ദൂസിന് നമ്മൾ തിരുവാതിര എന്ന കളി നമ്മൾ ഉപയോഗിക്കുന്നു ക്രിസ്ത്യൻസിന് മാർഗം കളി എന്ന കലാരൂപം നമ്മൾ ഉപയോഗിക്കുന്നു മുസ്ലിംസിനും ഒപ്പന എന്ന കലാരൂപം നമ്മൾ ഉപയോഗിക്കുന്നു കാരണം ഓരോത്തിനും ഓരോ ഇതിനും ഓരോ വേഷ സംവിധാനങ്ങളിലും എല്ലാത്തിനും മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് തിരുവാതിരയ്ക്ക് നമ്മൾ ഹിന്ദുസിൻ്റെ ഈ വസ്ത്രമായ പിന്നെ സെറ്റ് മുണ്ട് നേരിയത് മുണ്ട് എന്നുള്ളത് അവരുടെ പൈതൃക വേഷമായത് അതിനാണ് ഉപയോഗിക്കുന്നത് അവരുടെ ചന്ദനക്കുറികളും മറ്റും നമ്മൾ അതിൻ്റെ ചിഹ്നമായിട്ട് ഉപയോഗിക്കുന്നത് അതുവരെ നിലവിളക്ക് നിലവിളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രധാന ഭാഗങ്ങളിൽ നിന്നാണ് നിലവളക്ക് കാരണം നിലവളക്കാണ് ഈ ഹിന്ദുൂസിൻ്റെ ഏറ്റവും പ്രധാന അപ്പം അവരുടെ ആ കളികളിലും നിലവളക്ക് കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചിരിക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന് കലാരൂപമായ മാർഗം കളി മാർഗം കളി പിന്നെ പാരമ്പര്യ വേഷമായ ചട്ടയും മുണ്ടും ഉപയോഗിച്ചാണ് ആ ഡ്രസ്സാണ് അവരുടെ പാരമ്പര്യ വേഷം കാരണം ചട്ടയും മുണ്ടും നേരിയതും നേരിയതുപയോഗിച്ചു അവർ കളിക്കുന്നു പിന്നെ മാർഗ്ഗംകളിയിൽ മാർത്തോമ കുരിശോടു കൂടിയ നിലവളക്ക് ഉപയോഗിക്കുന്നുു അതുപോലെ തന്നെ തള കാൽ തള ചെവിയിൽ പിന്നെ കുണുക്ക് ഒക്കെ ഇട്ടാണ് അവർ കളിക്കുന്നത് പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അ കുണുക്ക് എല്ലാം ക്രിസ്ത്യൻസിന് എല്ലാവരും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കുണക്ക് എന്നുള്ളത് ഉപയോഗിക്കുന്നത് അപ്പം അത് ഒരു പാരമ്പര്യ വേഷമായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിമിൻ്റേത് മുസ്ലിങ്ങളുടെ ഒരു പാരമ്പര്യ വേഷമാണ് മുസ്ലിങ്ങൾ തലിയിൽ തട്ടമിട്ടാണ് മുസ്ലിങ്ങളുടെ കളിക്കുന്നത് കാരണം അവർക്ക് ഒപ്പന കാരണം അവരുടെ പ്രധാന ഇതിലാണ് ഒപ്പന തട്ടമിട്ടുള്ള കളികളാണ് കൂടുതലും പച്ച നിറത്തിലുള്ള ഡ്രസ്സുകളാണ് അത് ഉപയോഗിക്കാറുള്ളത് അതൊക്കെയാണ് അവരുടെ ചിഹ്നങ്ങളാണെങ്കിലും നമ്മുടെ ക്രിസ്ത്യൻസിൻ്റേത് കുറിച്ച് മാർത്താമ കുരിശ് പിന്നെ ഹിന്ദുസിൻ്റേത് അവരുടെ ലിങ്കം ചേർന്ന പിന്നെ നിലവിളക്ക് മുസ്ലിങ്ങളുടെത് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വച്ചു അവർ ഇങ്ങനെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഥകളി കഥകളിയിലൊക്കെ ആണെങ്കിലും കഥകളി മുദ്രകളൊക്കെ ആണെങ്കിലും നമ്മൾ കഥകളി ഒരു ഇതാണ് കാരണം ഒരു നമ്മുടെ ഓണക്കാലത്തൊക്കെയാണെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായ കളിയാണ് ഈ കഥകളി എന്നുള്ളത് കഥകളി അതിൽ കഥകൾ കഥകൾ കേട്ടോണ്ടിരിക്കുമ്പഴേ നമുക്ക് അതിൻ്റെ ആസ്വാദനത്തെക്കുറിച്ചു അതിന് പിന്നെ കറക്റ്റായിട്ട് അതിനെക്കുറിച്ചു അനുഭവിച്ചു അറിയാൻ കഴിയത്തുള്ളു കാരണം കഥകളിയുടെ ആ ഇത് കഥ കേട്ടു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അത് കൂടുതലായിട്ട് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ പിന്നെ ഓരോ പാരമ്പര്യ കളികളാണെങ്കിലും ഇത് കഥകളി പിന്നെ കൈകൊട്ടിക്കളി അത് പിന്നെ കോൽക്കളി മുതലായവ എല്ലാ കളികളിലാണെങ്കിലും നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിലാണ് കാരണം സംസ്കാരം നമ്മുടെ സംസ്കാര രീതിയിലാണെങ്കിൽ നമ്മുടെ ഓരോ ഓരോ ഓരോ പ്രദേശത്തിനും ഓരോ സംസ്കാര രീതിയാണ് കാരണം ഭാഷ വസ്ത്രം ധാരണത്തിലായാലും എന്ത് കാര്യത്തിലായാലും ഓരോരുത്തർക്കും ഓരോരോ കാരണം തിരുവനന്തപുരത്തെ ഭാഷ ഒന്ന് അവരുടെ വസ്ത്രധാരണ രീതിയിൽ വ്യത്യാസം അതുപോലെ ആവണം എന്നില്ല ഇപ്പ മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ അവരുടെ വസ്ത്രധാരണ രീതിയിൽ വ്യത്യാസം അതു വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഡളി ആ ഈ ഏരിയയിൽ പോകുമ്പോൾ അത് അവർക്ക് അവരുടേതായ രീതിയിലുള്ള വസ്ത്രധാരണം വിദേശത്ത് പോകുമ്പോഴത്തെക്കും അത് അവരുടേതായ സംസ്കാരത്തിന് ചേർന്നതാണ് പക്ഷെ അങ്ങനെയൊന്നും ആരും അങ്ങനെ പരസ്പരം നോക്കാനോ അങ്ങനെയുള്ളൂ പക്ഷെ നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുമ്പോഴത്തേക്കും ഭാഷയിലാണെങ്കിലും നമുക്ക ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പല പല സ്ഥലങ്ങളിൽ പോകുമ്പത്തേക്കും സംസാര രീതി തന്നെ ഒത്തിരി മാറ്റം വരുന്നുണ്ട് കാരണം നമ്മുടെ തിരുവന്തപുരത്തിലെ തിരുവന്തപുരം ഭാഷ അവർ സംസാരിക്കുമ്പോൾ തന്നെ ആ ഭാഷ ചിലപ്പോൾ പാലക്കാട് പോകുമ്പോൾ അവർക്ക് അറിയണം എന്നില്ല പാലക്കാട് ചിലപ്പോൾ പോകുന്ന കാര്യങ്ങൾ തന്നെ അവർ ചില ഓരോ കാര്യങ്ങൾ പറയുമ്പത്തേക്കും നമുക്ക് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു കാരണം അവർ കണ്ണൂർ തൃശ്ശൂർ അത് തൃശ്ശൂർ തന്നെ അവർ വന്നു നമ്മളോട് ഉദാഹരണത്തിന് പറയുകയാണ് കൊള്ളി നമ്മൾ ഇവിടെ പറയുന്നത് കപ്പ നമ്മളോട് കൊള്ളിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് അത് ബുദ്ധിമുട്ടാണ് കൊള്ളി എന്ന് പറയുമ്പം നമ്മൾ ചോദിക്കും എന്തൊന്ന് സംഭവം എന്നു ചോദിക്കും പക്ഷെ അവർ അത് കപ്പയ്ക്കാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് പറയുന്ന ഭാഷ അത് കപ്പ എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ ഇത് ഓരോ ഇതാണെങ്കിലും നമ്മൾ തോരനൊക്കെ ആണെങ്കിലും തോരൻ വയ്ക്കുമ്പോൾ തന്നെ അത് തോരനെന്ന് പറയുന്നു പക്ഷേ മറ്റേ അവർ പറയുന്നത് അത് ഉപ്പേരി ഉപ്പേരി നല്ല ടേസ്റ്റാണെന്ന് പറയാം അപ്പം എനിക്ക് തന്നെ അത് ദിവസം ഉപ്പേരി കൊള്ളാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് ഉപ്പേരി എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴക്ക കൊണ്ട് പിന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതെന്ന് ഉപ്പേരി അല്ലെങ്കിൽ ചിപ്സ് വാഴക്ക കൊണ്ട് വറുത്തെടുക്കുന്നതാണ് ഉപ്പേരി എന്ന് പറയുന്നത് പക്ഷെ അവർ പറയുന്നത് അത് തോരനാണ് പക്ഷെ നമ്മളിവിടെ കേരളത്തിൽ ഉപയോഗിക്കുന്നത് അത് തോരനെന്നുള്ളതാണ് അതിൻ്റെ ഓരോരുത്തരുടെ ആണെങ്കിലും പാരമ്പര്യ രീതിയിലാണെങ്കിലും അങ്ങനെ പാരമ്പര്യം നമ്മൾ നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ക്രിത്യാനിയെന്ന് എനിക്ക് ഇനി ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കുക ചെറപ്പകാലം മുതൽ നമ്മൾ നമ്മുടെ മാതപിതാക്കള ഉപയോഗിച്ചു വരുന്ന ആ പാരമ്പര്യം നമ്മൾ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ചെറുപ്പകാലം മുതലെ നമുക്ക് ബാക്കി എന്തു മാറ്റാൻ പറ്റിയാലും നമ്മൾ ഒരിക്കലും നമ്മുടെ ഭർത്താവ് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ പാരമ്പര്യ രീതി മാറ്റാനും നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതൽ അതൊന്നും അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്യ്മ ആയതുകൊണ്ടായിരിക്കണം അവർ ഇതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല അവർ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചു ചെയ്യുന്നു അവരുടെ രീതിക്ക് അനുസരിച്ചു നീങ്ങുന്നു പക്ഷെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കൂടപ്പറപ്പകളെ വിട്ട് നമ്മൾ ഒരു കാര്യത്തിനും നമ്മുടെ പാരമ്പര്യമായ രീതികളിലൊന്നും മാറ്റം വരുത്താൻ നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊന്നും ഒരു ഒരു കാര്യത്തിന് ഒരു വിലയും ഇല്ല എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനത്തെ രീതിയിൽ പക്ഷേ പണ്ട് കാലത്ത് നമ്മ ൾ ഇപ്പോൾ ക്രിത്യാനികളെന്നു പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ തന്നെ ഒരു പെണ്ണ് ഒളിച്ചു ഓടി പോയി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മ മറ്റുള്ള അവരെ അംഗീകരിക്കാനും ആ പിള്ളേരെ ആ കൊച്ചിനെ പിന്നെ വീട്ടിൽ കയറ്റാനും നമ്മുടെ കൂടെ കൂട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഒഴിവാക്കി നിർത്തും അവരെ പക്ഷേ ഇപ്പോ ഒന്നുമില്ലെങ്കിലും ഇപ്പം നമ്മടെ ക്രിസ്ത്യാനി ബാ മുസ്ലിങ്ങളെ പിന്നെ കെട്ടിയാലും ഹിന്ദുക്കുകളെ കെട്ടിയാലും ആ ഒന്നുമില്ല അത് നമ്മുടെ മക്കളായി അല്ലെങ്കിൽ അവർ കൈവിട്ട് പോവും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു പക്ഷെ നമ്മുടെ സംഭാവന ഇപ്പം ചിഹ്നങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ ഓരോ ഓരോ പാരമ്പര്യത്തിൻ്റെ ഓരോ ചിഹ്നങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്ക വളരെ നമ്മുടെ സംസ്കാര രീതിയാണെങ്കിലും എല്ലാ കാര്യത്തിനും നമുക്ക് ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുന്നു പക്ഷേ അതിൻ്റെ ദൂഷ്യവശങ്ങൾ പാരമ്പര്യം മാറ്റുന്നതിൻ്റെ ദൂഷ്യവശങ്ങൾ ഇപ്പോൾ കുറച്ചു അനുഭവിക്കാറുണ്ട് എന്നുള്ളതും ഏറ്റവും വലിയ സംഗതിയാണ്